കസ്റ്റമർ കെയർ സർവ്വീസാണ് ആണോ അതായത് ഞാന് ഒരു ഒര് പത്ത് ദിവസം മുന്നേ രണ്ട് മൂന്ന് സാ രണ്ട് സാധനങ്ങളോഡറെയ്തിരുന്നു ഓർഡര് ചെയ്തതിന്റെ പേയ്മെൻറ്റും ചെയ്തതാണ് അത് ഡെലിവറി ഡേറ്റ് കാണിച്ചിരുന്നത് ഇന്നലെ ആരുന്നു പക്ഷേ നമുക്ക് സാധനം കിട്ടിയിട്ടില്ല ഇന്നലെ ഇന്നുമായിട്ട് കിട്ടിയിട്ടില്ല അതായത് ഒരു മിക്സിയും ഒരു ഇന്റക്ഷൻ കുക്കറുങ്കൂടോഡര് ചെയ്തതാണ് രണ്ടിനുങ്കൂടെയുള്ള എമൗണ്ട് വരുന്നത് നയൻ തൗസൻറ്റായിരുന്നു അതും നമ്മള് പേ ചെയ്തതാണ് ഗൂഗിൾ പേ ചെയ്ത് അതിന്റെ സ്ക്രീൻ ഷോട്ടും ഞാനെടുത്ത് സേവ് ചെയ്ത് വച്ചിട്ടുണ്ട് ഇന്നലെ കിട്ടേണ്ട സാധനം ഇന്നലെ ഇന്നുമായിട്ട് കിട്ടിയിട്ടില്ല അപ്പോള് അതിൻ്റെ ഒരു ഡീറ്റെയ്ൽസെനിക്കറിയണമായിരുന്നു എത്രയും വേഗന്ന് തന്നെ സാധ അത് പ്രോഡക്റ്റ്സെനിക്ക് കിട്ടാനുള്ള എന്താന്ന് വച്ചാല് ചെയ്യണം അതിന് വേണ്ടിയിട്ട് വിളിച്ചതാണ്